പാസഞ്ചർ ബസ്സ് പാസഞ്ചർ ബസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും മറ്റ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു വാഹനമാണ് പാസഞ്ചർ ബസ്സ് എന്നു പറയുന്നത് ഈ പാസഞ്ചർ ബസ്സ് എന്നു പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഒരു നാൽപ്പത്തഞ്ച് ആളുകൾ അല്ലെങ്കിൽ അതിൽ നാൽപ്പത്തഞ്ചാളുകൾക്കുള്ള സീറ്റിങ്ങോടുകൂടി അതിൽ കൂടുതലാളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടെനീളമൊക്കെ തന്നെ സർവീസ് നടത്തുന്ന ഒരു പൊതു വാഹനമായിട്ടുള്ളതും അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനമായിട്ടും നിരത്തുകളിലൂടെ സഞ്ചാരം നടത്തുന്ന ഒരു വാഹനമാണ് പാസഞ്ചർ ബസ്സ് എന്നു പറയുന്നത് ഇത് പ്രധാനമായിട്ടും പാസഞ്ചർ ബസ്സ് എന്നു പറയുന്നത് രണ്ട് ടൈപ്പിൽ വന്നിട്ടുണ്ട് ഈ പാസഞ്ചർ ബസ്സുകൾ എന്നു പറഞ്ഞാൽ പ്രൈവറ്റായിട്ടും പിന്നീട് ഗവൺമെൻ്റിൻ്റെ അധീനതയിലുള്ളതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ബസ്സുകളാണ് പാസഞ്ചർ ബസ്സുകളാണ് നിലവിൽ ഇന്ത്യയിൽ നിലവിലുള്ളത് ഈ എല്ലാ ബസ്സുകൾ എന്നു പറയുന്നത് പ്രൈവറ്റ് ബസ്സ് എന്നു പറയുന്നത് പ്രൈവറ്റ് വ്യക്തികളുടെ അതായത് സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ളതും അത്തരം വണ്ടികളിൽ ചിലപ്പോഴൊക്കെ ഒരേ ഒരു ടിക്കറ്റ് ചാർജ് ഈടാക്കുകയും അതിൻ്റെ ഇല്ല വൈകുന്നേരം കണക്കുകൂട്ടി അതിൻ്റെ ഒരു പൈസ അതിൻ്റെ മുതലാളിക്ക് കിട്ടുന്ന രീതിയിലാണ് നെലവിലുള്ളത് പക്ഷേ എന്നാൽ അത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യാനായിട്ട് പൊതുവേ കേരളത്തിലുള്ളവർ അങ്ങനെ ഒരു താൽപര്യം കാണിക്കുന്നതായിട്ട് കണ്ടു വരുന്നില്ല ഇടറോഡുകളിലാണ് പ്രധാനമായിട്ടും ഇത്തരം ബസ്സുകൾ ഓടുക അതിനകത്ത് അതുകൊണ്ടുതന്നെ അതിനകത്ത് അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ടെങ്കിൽക്കൂടിയും ഒരു ദീർഘദൂര യാത്രയ്ക്കൊരിക്കലും ഒരു സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് പാസഞ്ചർ ബസ്സുകളെ സ്ലീപ്പർ കോച്ച് അത്തരത്തിലുള്ള ബസ്സുകളല്ല സാധാരണ ഗതിയിലുള്ള ഒരു പാസഞ്ചർ ബസ്സിനെ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന ഒരു ഒരു രീതി മലയാളീസിൻ്റെയിടയിൽ കണ്ടു വരാറില്ല മലയാളീസിൻ്റെ ഇടയിൽ മാത്രമല്ല ഇന്ത്യയിൽ ടോട്ടലായും കണ്ടു വരാറില്ല ചില ബസ്സുകൾ എന്നാൽ ടൂർ സ്ലീപ്പർ കോച്ചുകളായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ ട്രാവൽസ് അത്തരത്തിലുള്ള കുറച്ച് ട്രാവലുകൾ നടത്തുന്ന പാസഞ്ചർ ബസ്സുകളുണ്ട് അത് ബുക്ക് ചെയ്ത് നമ്മളൊരു ഒരു നിശ്ചിത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരു ബസ്സുകളായിരിക്കും അത്തരം ബസ്സുകളിൽ ഈ എല്ലാവരും യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എല്ലാവിധ സൗകര്യങ്ങളും അതിനകത്തുണ്ടാവും മുകളിൽ സ്റ്റോറേജ് കാരിയറുണ്ടാവും വിൻഡോസെല്ലാം സൈഡിലോട്ട് സ്ലൈഡിങ് വിൻഡോസായിരിക്കും ഓപ്പൺ വിൻഡോസാണ് നല്ല കാറ്റും വെളിച്ചവും കയറുന്ന രീതിയിലുള്ളതാണ് എല്ലാ ബസ്സുകളും ഡീസലിലാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം ഡീസലിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളുടെ ഒരു ഗുണമെന്ന് വച്ചു കഴിഞ്ഞാൽ പൊതുവേ സൗണ്ട് കുറവായിരിക്കും ഇത് ഇത്തരം സ്ലീപ്പർ കോച്ചുകൾക്ക് പൊതുവേ സൗണ്ട് കുറവായിരിക്കും കുലുക്കം കുറവായിരിക്കും നല്ല സംവിധാനങ്ങളുണ്ടാവും ഉറങ്ങി നമുക്ക് നല്ല ഒരു മടുപ്പില്ലാതെ ഒരു കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലോടുകൂടിത്തന്നെ നമുക്ക് ഒരു നിശ്ചിത പൊസിഷനിലോട്ടെത്താനായിട്ട് പറ്റും രണ്ടാമത്തെ തരത്തിലുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻ്റിൻ്റെ കീഴിലുള്ള ബസ്സുകളാണ് കേരളത്തിൽ കെ എസ് ആർ ടി സി

ബസ്സ് പലവിധത്തിലാണ് അതായത് സ്ലീപ്പർ കോച്ചുള്ളതുണ്ട് നോർമൽ സാധാരണ പോയൻ്റ് ടു പോയിൻ്റ് എന്നു പറഞ്ഞൊരു ടൈപ്പുണ്ട് ടൗൺ ടു ടൗൺ എന്നു പറഞ്ഞൊരു ബസ്സുണ്ട് സാധാരണ ഓഡിനറി ബസ്സുകളുണ്ട് പിന്നെ ചില ജംഗിൾ സഫാരി എന്നു പറഞ്ഞിട്ടുള്ള വിനോദസഞ്ചാര പാക്കേജുകളോടുകൂടി സഞ്ചരിക്കുന്ന ബസ്സുകളുണ്ട് അതല്ലാതെ ദീർഘദൂര യാത്രയ്ക്കായിട്ട് വേഗതയേറിയ പോയിൻ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട് എക്സ്പ്രെസ് ബസ്സുകളുണ്ട് പിന്നെ ജോലിക്കാർക്ക് വേണ്ടി മാത്രം രാവിലെ ഓടി വൈകുന്നേരം തിരിച്ചു വരുന്ന ബോണ്ട് ബസ്സുകളുണ്ട് പിന്നെ ഇപ്പോൾ നിൽക്കുകയാണ് നിലവിൽ കേരളത്തിൽ സ്വിഫ്റ്റ് എന്നു പറഞ്ഞൊരു സ്വകാര്യ കമ്പനിയുമായി കൈകോർത്തുകൊണ്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതി പദ്ധതിയുണ്ട് അത്തരത്തിൽ ആ അങ്ങനെയുള്ള ആ സ്വിഫ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് തരത്തിലുള്ള ബസ്സുകളുണ്ട് ഈ പറഞ്ഞ സ്ലീപ്പർ കോച്ചുകളായിട്ടായാലും അതല്ലെങ്കിൽ സെമിസ്ലീപ്പർ കോച്ചുകളായിട്ടാണെങ്കിലും ഫാസ്റ്റ് പാസഞ്ചറുകളായിട്ടായിരുന്നെങ്കിലും ഒരുപാട് ബസ്സുകളുണ്ട് ഇത്തരം ബസ്സുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും പ്രധാനം ചെയ്യുന്നവയാണ് ഇത്തരം ബസ്സുകളുടെ ഒരു പ്രധാന ഗുണം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചാർജിൽ നമുക്ക് ഒരു വലിയൊരു യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പൊതു പാസഞ്ചർ ബസ്സുകളെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഉപകാരം അതാണ് കാരണം ഒരു ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് നല്ല അത്യാവശ്യം നല്ല നല്ല ഒരു യാത്ര ഒരു ഗവൺമെൻ്റിൻ്റെ അധീനതയിലുള്ള ബസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് ചില സാധാരണഗതിയിൽ ഈ പോയിൻ്റ് ടു പോയിൻ്റ് തുടങ്ങിയ നോർമൽ ബസ്സുകൾ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളുടെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെങ്കിൽക്കൂടിയും ഈ സ്വിഫ്റ്റിൻ്റെ തന്നെ ഗരുഡ അല്ലെങ്കിൽ മഹാരാജ തുടങ്ങിയ ബസ്സുകളൊക്കെയുണ്ട് ഇത്തരത്തിലുള്ള ബസ്സുകളിലുള്ള യാത്ര വളരേ എന്നാൽ എന്താ പറയുക വളരെ ആഡംബരമായിട്ടുള്ള യാത്രയാണ് സ്ലീപ്പർ കോച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറങ്ങി നല്ല സൗകര്യങ്ങളൊക്കെയോടുകൂടിയ ബസ്സാണ് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റികളുണ്ട് വിൻഡോസുകളും സീറ്റുകളും ഒക്കെ നല്ല സൂപ്പറാണ് വേറെ വേറെയൊരു അസ്വസ്ഥകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു ഒരു ഒരത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളുമായിട്ട് കുറച്ചുംകൂടി ഒരു ഗവൺമെൻ്റിൻ്റെ അധീനതയിലായിട്ട് സ്ത്രീകൾക്കൊരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പാസഞ്ചർ ബസ്സുകൾ പ്രവർത്തിക്കുന്നത് ഗവൺമെൻ്റ് അധീനതയിൽ കാരണം വച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അവർ രാത്രി ആണെങ്കിലും ഒരു സ്റ്റോപ്പ് അനുവദിച്ച് അനുവദിക്കണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നയിടത്ത് എനിക്ക് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തിക്കൊടുക്കണം എന്ന ഒരു ഓർഡർ നിലവിൽ കേരളത്തിൽ നിലവിലുണ്ട് ഇത്തരത്തിലുള്ളതുകൊണ്ടുതന്നെ ഒരു ഒരു ഒരു സ്ത്രീകളുമായിട്ട് കുറച്ചുംകൂടിയൊരു സ്ത്രീ സൗഹൃദമായിട്ടുളള ഒരു മെത്തേഡാണ് ഇപ്പോഴത്തെ ഒരു ബസ്സുകളിൽ കണ്ടു വരുന്നത് പിന്നീട് പറയുക എന്ന് വച്ചു കഴിഞ്ഞാൽ ഇത്തരം ബസ്സുകൾ അതായത് ഈ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പാസഞ്ചർ ബസ്സുകൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം പുതിയ ബസ്സുകൾ തന്നെയാണ് ഓടിക്കൊണ്ടിക്കുന്നത് ശബ്ദമലിനീകരണം അധികം ഇല്ല ഇപ്പോൾ വായു മലിനീകരണം അധികമില്ല ഡീസൽ ബസ്സാണ് എന്നാൽ കൂടിയും വായു മലിനീകരണങ്ങളുണ്ടെങ്കിൽ കൂടിയും പൊതുവേ പഴയൊരു ബസ്സുകളിൽ നിന്ന് ഉയരുന്ന കണക്കുളള പുകകളോ അല്ലെങ്കിലും അത്തരം കാര്യങ്ങളൊന്നും നിലവിലിന്ന് ഇല്ല അതുകൊണ്ടുതന്നെ അത്യാവശ്യം പരിസ്ഥിതി സൗഹൃദമായിട്ടുതന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലാണെങ്കിൽ കെ യു ആർ ടി സി എന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി ടെ തന്നെ ബസ്സുകളെറങ്ങീട്ടുണ്ട് അത്പോൽത്തന്നെ കെ യു ആർ ടി സിയുടെ തന്നെ എന്താ പറയുക നമ്മുടെ ഇലക്ട്രിക്കൽ അതായത് കറൻ്റിൽ പ്രവർത്തിക്കുന്ന ബസ്സുകളിറങ്ങിയിട്ടുണ്ട് ഇത്തരം ബസ്സുകളൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണുന്നു ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നതൊരു ഒരു വഴിയെന്നു പറഞ്ഞത് പാസഞ്ചർ ബസ്സുകളാണ് ഇപ്പോൾ നമുക്കൊരു പരീക്ഷയ്ക്ക് പോവാനായിട്ടാണെങ്കിലും നമ്മുടെ ഒരു ഒരു എന്താ പറയുക പൊതു നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൂ വീലർ മാത്രമല്ലെങ്കിലൊരു ഇരുചക്ര വാഹനം മാത്രം കൈവശത്തിലുള്ളൊരു വ്യക്തിയാണ് നമുക്ക് വീട്ടുകാരെ കൂട്ടി നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ആശ്രയിക്കുന്നത് പാസഞ്ചർ ബസ്സുകളെ തന്നെയാണ് ഞങ്ങളും അങ്ങനെതന്നെ കുടുംബ വീടുകളിലേക്കും പരീക്ഷാ സെൻ്ററുകളിലേക്കും അടുത്തുള്ള പ്രധാന ടൗണുകളിലേക്കും ഫാമിലിയായിട്ട് പോകുമ്പോഴും ഒക്കെ ബസ്സുകളെത്തന്നെയാണ് ആശ്രയിക്കുന്നത്